ഇടുക്കി ജില്ലയിലെ നാട്ടുഗ്രാമങ്ങളിൽ ഇന്നും പലതരത്തിലുള്ള അനുഷ്ഠാനം അനുഷ്ഠാനേതര കലകൾ കലകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പരിപാടികൾ ഇന്നും നടന്നുവരുന്നു വളരെ ഐക്യത്തോടുകൂടിത്തന്നെ ഇടുക്കി ജില്ലയുടെ പൂർവ്വസ്ഥിതിയെ നിലനിർത്തുന്നതിനുവേണ്ടി അതൊരുപാട് സഹായകമാകുന്നുണ്ട് എന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഇടുക്കി ജില്ലയിലെ പല പ്രത്യേകതകൾ എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഭൂപ്രകൃതികൊണ്ടും സാമൂഹിക സാംസ്കാരിക മേഖലകൾകൊണ്ടും ഒരുപാടധികം മികച്ചു നിൽക്കുന്നൊരു ഗ്രാമം തന്നെയാണ് ഇടുക്കി ഇടിക്കിയിലെ ഗ്രാമങ്ങളും അതിന് ഇത്തരം അനുഷ്ഠാന അനുഷ്ഠാന കലകൾ അനുഷ്ഠാന രീതികൾ സാമൂഹിക സാംസ്കാരിക ആചാരങ്ങൾ ഐക്യം സമൂഹം എന്നീ ഘടകങ്ങൾ പ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട് വളരേ അധികം വളരേയധികം ബുദ്ധിമുട്ടേറിയ ഒരു മേഖല തന്നെയാണ് സാമൂഹികമായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചെടുത്തോളം സാമൂഹികമായാലും സാംസ്കാരിക മേഖലയാണെങ്കിലും വളരേയധികം ബുദ്ധിമുട്ടുകളിന്നും നേരിടുന്നു എന്നാൽ ആളുകളുടെ ഒത്തൊരുമ സാംസ്കാരികമായ മേഖലയിലെ ഐക്യം എന്നിവകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ ഇന്നും നേരിടാൻ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചെടുത്തോളം സാധിക്കുന്നുണ്ട് എന്നു തന്നെയാണ് സത്യം വളരേയധികം പിന്നോക്കം നിൽക്കൊന്നുരു ഗ്രാമമാണ് അല്ലെങ്കിൽ മേഖലയാണ് ഇടുക്കിയെന്നത് മറ്റുള്ള ഗ്രാമങ്ങളെ വെച്ചു നോക്കുമ്പോൾ മറ്റുള്ള ജില്ലകളെ വെച്ചു നോക്കുമ്പോൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നതും ഇടുക്കി ജില്ല തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ ഐക്യം പ്രളയം രണ്ടായിരത്തിപ്പതിനെട്ടിലെ പ്രളയം തന്നെ പ്രധാന കാരണമായെടുത്താലും ഐക്യം സാമൂഹ്യമായ സമൂഹത്തിലെ ഒത്തൊരുമ ഇവ കൊണ്ടുതന്നെയാണ് ഇന്നും ഇടുക്കി ജില്ല പിടിച്ചു നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ലയിൽ പിന്തുടരുന്ന ചില പൊതുവായ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക രീതികൾ ആചാരങ്ങൾ എന്തൊക്കെയെന്ന ചോദ്യത്തിന് മറുപടിയെന്നു പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാഷ ഗോത്രഭാഷ ഗോത്രങ്ങളിൽ ഇന്നും പലതരത്തിലുള്ള സാംസ്കാരികമായ ആചാരം ആചാരങ്ങൾ സാംസ്കാരികമായല്ല ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആചാരങ്ങളുമായി ഒത്തൊരുമി അല്ല പൊരുത്തപ്പെട്ട് ഇന്നും ഒട്ടനവധി ആളുകൾ ഇന്നും അതിനെ പിന്തുടരുന്നു ആ ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട് അതൊക്കെ വെച്ചു നോക്കുമ്പോൾ വലിയൊരു ഒത്തൊരുമ ഒരൈക്യം ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന തെളിവ് തന്നെയാണത് ഇടുക്കി ജില്ലയെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ചും ഒട്ടനവധി കഥകൾ ഇന്നും നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം മുന്നോട്ടു പോവുന്നത് ഒരുപാടധികം ആചാരങ്ങൾ കേരളമെമ്പാടും നിൽക്കുന്നുണ്ട് അതിലെ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലതന്നെയാണെന്ന് നിസംശയം പറയാൻ സാധിക്കുന്നതുമാണ് ആചാരം അനുഷ്ടാനം ഐക്യം സമൂഹത്തിന് ഇത്തരം സംഭാവന സംഭാവനകൾ നൽകുന്നതിലൂടെ ഒരുപാടധികം ഒരുപാടധികം ഐക്യം നിലനിർത്താൻ സാധിക്കുന്നും ഉണ്ട്